കാർഷിക വ്യവസായത്തെ നമ്മൾ പിന്തുണയ്ക്കുന്നതിന് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് പറയുവാനുണ്ട് കാരണം അതിലൊന്നാണ് നമ്മളുടെ നമ്മൾ കൃഷി ചെയ്യുമ്പോഴേക്കും അമിതമായിട്ടുള്ള വിഷങ്ങളൊന്നും അടിക്കാതെ നല്ല രീതിയിൽ നമ്മൾക്ക് നല്ല തരത്തിലുള്ള നല്ല ഇനം പച്ചക്കറികൾ നമുക്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കാനൊത്തിരി സാധിക്കുന്നുണ്ട് വിഷരഹിതമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മളുടെ നാട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരിക്കലും നമ്മൾ വിഷമായിട്ടുള്ള വസ്തുക്കൾ ആർക്കും കൊടുക്കുവാൻ പാടില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ലതാണെന്ന് നമ്മളുറപ്പ് വരുത്തിയാണ് നമ്മളത് കഴിക്കേണ്ടത് കാർഷിക വ്യവസായത്തിൽ നമ്മൾ മറ്റുള്ളവരെ ഇതിനകത്തുൾപ്പെടുത്തി നമ്മളുടെ നല്ല കൃഷികൾ നമ്മൾ മറ്റുള്ളവരോട് പറയും നമ്മുടെ കൃഷി നമ്മളിന്നതുപോലെ ചെയ്യുന്നുണ്ട് നിങ്ങളത് അതിൽ വന്ന് പങ്കാളിയായി ഇതിനകത്തുനിന്ന് മേടിച്ച് വിഷരഹിതമല്ലാത്ത പച്ചക്കറികൾ നമുക്കത് കഴിക്കുവാൻ നിങ്ങൾക്ക് ആരോഗ്യം സംരക്ഷിക്കുവാൻ എല്ലാം ഇതിലൂടെ ഒത്തിരി ഉപകാരപ്രദമായ രീതിയിൽ നമുക്കത് അനുഭവിക്കുവാൻ പറ്റും നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈ അനധികൃതമായിട്ടുള്ള വിഷങ്ങളടിച്ച് മാസങ്ങളോളമിരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഭക്ഷിക്കുമ്പോഴേക്കും ഒത്തിരി ഒത്തിരിയായിട്ടുള്ള മാരകമായ അസുഖങ്ങൾ ഇപ്പം നമ്മളെ പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ ഒരു കൃഷി ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് നമുക്കെന്തെങ്കിലും പറിച്ചു കഴിച്ച് നമുക്ക് നല്ല ഉറപ്പുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല രീതിയിൽ നല്ലതായിട്ട് പോകുന്നുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നു മേടിച്ച് അതിത്രനാൾ വെളിയിലവർ ഓരോരോ സാധനങ്ങൾ കുത്തിവച്ചായിരിക്കും നമുക്ക് ഒരോ മരുന്ന് തന്നുകൊണ്ടിരിക്കുന്നത് പച്ചക്കറികൾ കഴിക്കുവാൻ നമുക്ക് തരുന്നത് അത് നമ്മൾ വീണ്ടും ഫ്രിഡ്ജിൽ വച്ച് തോരൻ വച്ചാണെങ്കിലും കറി വെക്കുമ്പോഴാണെങ്കിലും എല്ലാം അത് ഒത്തിരി നേരം അത് ഇതിനകത്തിടണമെന്നൊക്കെയാണ് പറയുന്നത് ഉപ്പിതിനകത്തിടുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴേക്കും നമുക്കത് സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ ആരോഗ്യപരമായിട്ടും നമുക്ക് ജീവിക്കുവാനതൊത്തിരി ഒത്തിരി ഉപകാരപ്രദമായിട്ട് പറ്റും മനുഷ്യനെ മറ്റുള്ള മനുഷ്യരിലേക്ക് അറിവ് പകർന്നു കൊടുക്കുമ്പോൾ അവർക്കും മനസ്സിലാവും നമ്മുടെ വിഷരഹിതമായിട്ടുള്ള വിഷമില്ലാത്ത ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറേ നാൾ കൂടി ഇവിടെ ജീവിക്കാം അപ്പോഴേക്കും മറ്റുള്ളവർക്കത് പ്രജോദനമാകും അവരും ഇതിലേക്കിറങ്ങിത്തിരിക്കും അപ്പോൾ അന്യനാട്ടിൽ നിന്ന് വരുന്ന ഭക്ഷണം നമുക്ക് വേണ്ടയെന്ന് അത് ഉറപ്പു വരുത്തി നമുക്കത് വേണ്ട നമ്മുടെ വീട്ടിലെന്തുകൊണ്ട് നമുക്ക് വച്ചുകൂട അതിനുവേണ്ടി നമ്മൾ കഠിന അധ്വാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുകാലത്തും നമ്മൾക്കൊരു ദോഷങ്ങളും പറ്റത്തില്ല നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ടു പോകുവാൻ വേണ്ടി നമുക്ക് ഒത്തിരി ഒത്തിരി സാധിക്കും നമ്മുടെ ആരോഗ്യപരമായിട്ട് നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കുണ്ടാകും നല്ല ഭക്ഷണം കഴിക്കുന്നതോടുകൂടി ഒത്തിരി ഒത്തിരി അസുഖങ്ങളും മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾക്ക് നമ്മുടെ തോട്ടത്തിലുണ്ടാകുന്ന പച്ചക്കറി എന്തുകൊണ്ട് കഴിച്ചുകൂട എന്ന് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അവർക്കുമത് മനസ്സിലായിത്തുടങ്ങും അപ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെയൊക്കെ മറന്ന് ഉറപ്പായിട്ടും കൃഷി ഇടങ്ങളിലേക്ക് നമുക്ക് പോകുവാൻ ഒത്തിരി ഒത്തിരി സാധിക്കും നമ്മളതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യപരമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ പറ്റു ഇല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചുള്ള കഴിച്ച് നമ്മുടെ ജീവിതം വെറുതെ തീർത്ത് എന്താ പറയുന്നത് ആരോഗ്യം മൊത്തം നശിച്ച് അസുഖത്തിന് വിട്ടു കൊടുക്കേണ്ടതായിട്ട് വരും അതിലും നല്ലത് നമ്മൾ ഇങ്ങനെ സ്വന്തം ചെയ്യുകയാണെങ്കിൽ നമ്മക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും ചെറിയൊരു പച്ചക്കറി മതി ഏതെങ്കിലു ഒരു രണ്ടു പച്ചക്കറി നട്ടാൽ മതി നമുക്കത് ഉറപ്പായിട്ടും നമുക്കത് ഭക്ഷിച്ച് നല്ല ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കുവാൻ പറ്റും